അതെ അതെ അതെ നമ്മുടെ ട്രാവല് ഇന്ത്യ എന്നാണ് ഓഫീസിന്റെ പേര്

ആ ആ എന്നത്തേക്കാണ് ആ ഈ മാസം പതിനെട്ടാം തീയ്യതിയാ ആ ആ മായം അല്ലേ ഇവിടന്ന് എത്ര കിലോമീറ്റര് ഉണ്ട് ഇത് തിരുവനന്തപുരത്താണ് ഈ ഓഫീസ് ഇവിടുന്ന് ആ ഒരു നാൽപ്പത് കിലോമീറ്ററോളം വരും ഓക്കെ അപ്പോൾ എത്ര പേര് കാണും നിങ്ങൾ അത്രയുണ്ടല്ലേ പത്ത് പേര് രാവിലെ എത്ര മണിക്കാണ് പോകണം എന്ന് പറഞ്ഞത് നിങ്ങൾ എത്ര പേര് കാണും എന്ന് പറഞ്ഞ് പത്ത് പേര് ഇന്നോവയിൽ പോവില്ലല്ലോ ആറ് മേക്സിമം ഏഴ് പേരെ ഇന്നോവയിൽ പോകൂ ആ ഏഴ് പേരെ ഇന്നോവയിൽ പോകുള്ളൂ അപ്പോൾ ഏഴ് പേരാണെങ്കിൽ വണ്ടി തരാം ആ നിങ്ങൾ പറയുന്ന സമയത്ത് ആ അവിടെ വണ്ടി എത്തും പത്ത് പേര്ക്ക് പോകാനുള്ള വണ്ടി ഇല്ല ഇല്ലെങ്കില് പതിമൂന്ന് പേര്ക്ക് പോകാനുള്ള ട്രാവലര് ഉണ്ട് ആ ഏ സി ആണ് യാത്ര സുഖമാണ് അതിൽ പോകാം ട്രാവലർ ആണ് കിലോമീറ്റര് ട്രാവലറ് ഏ സി ആണെങ്കിൽ ഇരുപത്തി ആറും നോണ് ഏ സി ആണെങ്കിൽ ഇരുപത്തി നാലും ഏ സി യാണ് യാത്ര സുഖം ഉണ്ട് ആ അപ്പം ഏ സി ആണെങ്കിൽ ഇരുപത്തി ആറാണ് കിലോമീറ്റര് പിന്നെ ആദ്യത്തെ ആദ്യത്തെ ആദ്യത്തെ ഒരു ഇരുപത് കിലോമീറ്ററിന് നാലായിരം രൂപയാണ് ആ അത് കഴിഞ്ഞ് കിലോമീറ്ററിന് ഇരുപത്തിയാറ് മ് ഏ സി ആണെങ്കിൽ ആ പതിനെട്ടാം തീയതി വെളുപ്പിന് അഞ്ച് മണി അല്ലേ ഇത് മായത്ത് എവിടെയാണ് രണ്ട് മണി രണ്ട് മണി ഓക്കെ മായത്ത് എവിടെയാണ് ആ ആ ചര്ച്ച് കഴിഞ്ഞിട്ടാണോ അതോ ചര്ച്ചിന്റെ ഇപ്പുറത്താണോ ഓ ശരി ശരി ശരി ആ അല്ലല്ല അതറിയാം അത് നിങ്ങളെ തലേന്ന് കോണ്ടേക്റ്റ് ചെയ്യും നമ്മളാ പറഞ്ഞ സമയത്ത് തന്നെ എത്തും രണ്ട് മണിക്ക് തന്നെ അവിടെ എത്തും രണ്ട് മണിക്ക് അവിടെ എത്തും നിങ്ങളെ ഇടയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്തോളാം ആ അത് നിങ്ങൾ ഇതിൽ ഈ നമ്പരിലേക്ക് ഗൂഗ്ള് അഡ്വാന്സ് ഒരു അയ്യായിരം രൂപ ഗൂഗ്ള് പേ ചെയ്താൽ മതി ഈ നമ്പരിൽ തന്നെ ആണ് ഗൂഗ്ള് പേ ഉള്ളത്

അപ്പോൾ നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്തോളാം ഓഹ് ശരി ശരി അപ്പോൾ പതിനെട്ടാം തീയതി രണ്ട് മണി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ